കുതിര സവാരിയിലേക്ക് എന്നെ ആദ്യം ആകർഷിച്ചത് എന്ന് പറയാൻ എനിക്ക് കാ എനിക്ക് കൃത്യമായി ഒരു ഓർമ്മയില്ല പക്ഷേ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിലൂടെ അതിലത്തെ റീൽസുകൾ ഒക്കെ കാണുമ്പോൾ അതിൽ പല കുതിര സവാരികളുടെ റീൽസും ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നാറ് ഉള്ള ഒരു കാര്യമാണ് കുതിര സവാരി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല അതുപോലെ തന്നെ സിനിമയിൽ ആണെങ്കിലും പുസ്തകങ്ങളിൽ ആണെങ്കിലും കുതിരസവാരിയെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് പോരാത്തതിന് ഈ കുതിരയുടെ മുകളിൽ കയറി യാത്ര ചെയ്യുക എന്നത് ഒരു വളരെ പ്രൗഢിയുള്ള ഒരു കാര്യമായി എനിക്ക് എന്തോ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് കുതിരസവാരിയിലേക്ക് എന്നെ ആകർഷിച്ചത് കുതിരസവാരി ചെയ്യാ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കുതിരസവാരി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് വേണ്ടി തുടരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനോടുള്ള പാഷൻ എന്ന് തന്നെ പറയാം എനിക്ക് കുതിരസവാരി ചെയ്യുമ്പോൾ എനിക്ക് ഇനിയും നന്നാക്കണം ഇനി നന്നാക്കണം അല്ലെങ്കിൽ ഇനിയും എനിക്ക് എന്തൊക്കെയോ കഴിവുകൾ നേടാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സിദ്ധികൾ നേടാനുണ്ട് എനിക്ക് എൻ്റെ എന്നെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടനവധി കുതിരകളുണ്ട് പതിനൊന്നിൽ പരം കുതിരകളുണ്ട് അപ്പോൾ അവയിൽ ഏറ്റവും കഷ്ടതയുള്ള കുതിരയെ പോലും എനിക്കധികം എനിക്ക് ഏറ്റവും നന്നായി സവാരി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴും അല്ലെങ്കിൽ അങ്ങനുള്ളൊരു തീക്ഷ്ണമായ ഒരാഗ്രഹമാണ് എന്നെ ഇപ്പോളും തുടരാൻ പ്രേരിപ്പിക്കുന്നത്